എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരൂ ബിസിനസ്സ് മാർഗ്ഗം എന്നു തോന്നുന്നത് നമുക്ക് പിന്നെ മുതൽമുടക്ക് ഇല്ലാതെ കിട്ടുന്ന ഒന്നാണ് ചക്ക പ്ലാവിലെ ചക്ക നമുക്ക് മുതൽ മുടക്ക് ഇല്ലാതെ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഈ ചക്ക വെച്ചിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ബിസിനസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കുറച്ച് ആൾക്കാരെയും കൂടെ കൂട്ടി നമ്മൾ ചക്കയൊക്കെ കളക്ട് ചെയ്ത് ചക്ക നമുക്ക് വറുക്കാം ചക്ക പിന്നെ സ്ക്വാഷ് ആക്കാം ചക്ക ജാം ഉണ്ടാക്കാം ചക്ക പിന്നെ ഹൽവ ഉണ്ടാക്കാം ഇതു നമുക്ക് പുറത്ത് രാജ്യങ്ങളിലേയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കയറ്റുമതിയൊക്കെ ചെയ്യാൻ പറ്റും ചക്കയും കൊണ്ട് ചക്കപ്പായസം അപ്പം ഇതൊക്കെ നശിച്ച് പോകാതിരിക്കാനുള്ള പുതിയ പുതിയ ഇത് നമ്മൾ കണ്ടുപിടിച്ച് ചക്കത്തോരൻ അത് ഇടിച്ചക്ക വെച്ച് തോരൻ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരുവും കൊണ്ട് ചക്കക്കുരു നമുക്ക് ഫ്രീസ് ചെയ്തു വയ്ക്കാം ചക്കക്കുരുക്കറിയും ചക്കയും മാങ്ങ കറിയൊക്കെ വയ്ക്കാൻ വേണ്ടി ചക്കക്കുരു നമുക്ക് കളക്ട് ചെയ്ത് അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് എല്ലാവരിലേയ്ക്കും ചക്കയെത്തിക്കാൻ പറ്റും ചക്ക ഇഷ്ടപ്പെടാത്ത കേരളീയരുണ്ടോ കേരളീയരല്ല ഏതു രാജ്യത്തും എവിടെ പോയാലും ചക്ക ഇഷ്ടപ്പെടുന്ന ഒരു കഷണം ചക്കച്ചുള കഴിക്കാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ബിസിനസ്സ് ആയിട്ട് ഒരു ബിസിനസ്സ് മൈന്റോടെ കണ്ടിട്ട് നമ്മുടെ പ്രദേശത്ത് ഒരു ബിസിനസ്സ് സ്ഥാപനം തുടങ്ങി അത് പിന്നെ നമുക്ക് എല്ലാവരിലേയ്ക്കും എത്തിക്കാൻ പറ്റും ചക്കയും കൊണ്ട് നമുക്ക് നല്ലൊരു ലാഭം ഉള്ള പരിപാടിയാണ് എന്തുകൊണ്ടും ചക്ക വെച്ചിട്ടുള്ള ബിസിനസ്സ്